ഞങ്ങളുടെ വീട്ടിൽ വാഴ വാഴ നടാറുണ്ട് അതുപോലെ തന്നെ പച്ചകറികൾ മത്തന് പച്ചമുളക് ക്യാബേജ് കോളിഫ്ലവര് അങ്ങനത്തെയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വളമോ അത് വിഷമോ ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതു കൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മളുണ്ടാക്കുന്ന പച്ചക്കറികൾക്കായാലും പഴങ്ങള്ക്കായാലൊക്കെ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാകും ഞങ്ങൾ എന്താ പറയുക മുന്തിരി ഒന്ന് നട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്ന് പിടിച്ചു ഇങ്ങു വന്നപ്പോഴത്തേക്കും അതിനെന്തോ ഇതു വന്നിട്ട് നാശമായി പോയി നമുക്ക് അത് ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചിന്റെ ഒക്കെ തൈ നട്ടിട്ട് നമുക്കതിൽ നിന്ന് ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെട്ടി കളയേണ്ടി വന്നത് വല്ലാണ്ട് ഇതായിട്ട് പിന്നെ കായൊന്നും ഉണ്ടാകുന്നില്ല പിന്നീട് കായോന്നും ഇല്ലാത്തതു കൊണ്ട് വെട്ടി കളയേണ്ടി വന്നു പിന്നെ പച്ചക്കറികൾ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പച്ചമുളകായാലും അതുപോലെ തന്നെ പയറുകളായാലൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലാക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്